ഹലോ തോമാച്ച ആ തോമാച്ചാ ഞാനാ നിങ്ങളുടെ ഹോട്ടലിലെ നമുക്ക് ഒരു നൂറ് പേർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കൊരു സൗകര്യം വേണമായിരുന്നല്ലോ നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം ആ നൂറ് പേർക്ക് നൂറ് പേർക്ക് അതേ ഇവിടെ ഒരു എന്നാ ഫങ്ഷന് വരുന്ന കുറച്ചാൾക്കാരെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ

മാമ്പഴക്കരി പള്ളിയിൽ ഒരു കല്ല്യാണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുറച്ച് ആൾക്കാര് റേ റിലേറ്റീവ്സ്സ് പുറത്ത് നിന്ന് വരുന്നുണ്ടേ അപ്പം അവർക്ക് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കാനുള്ള കംഫോട്ടായിട്ട് താമസിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഹോട്ടലിന്റെ അവിടെ അതിന് ഉള്ള ഒരു സ്പേയ്സ്സ് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ഏകദേശമൊരു നൂറിനും നൂ എഴുപത്തഞ്ചിനും നൂറിനും ഇടയ്ക്ക് അവരുണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാ വരുന്നതിൻ്റെ പിന്നത്തെ തിങ്കളാഴ്ച്ചയാണ് കല്ല്യാണം അവര് ശനിയാഴ്ച്ച രാത്രിയിൽ ഇവിടെ എത്തും ശനിയാഴ്ച രാത്രിയിൽ എത്തും ഞായറാഴ്ച്ച റെസ്റ്റ് ചെയ്യണം തിങ്കളാഴ്ച്ചത്തെ കല്ല്യാണത്തിന് താമസം

അക്കോമഡേഷൻ വേണം പിന്നെ ഈ കല്ല്യാണത്തിൻ്റെ ദിവസം വരുന്ന അതിൻ്റെ തലേ ദിവസങ്ങളിലുള്ള അവിടെ താമസിക്കാൻ വരുന്ന സമയം മുതൽ അവരുടെ ഫുഡ്ഡ് കൊടുക്കണം അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങള് ചെയ്യണം പിന്നെ ഇവർക്ക് ഈ പള്ളിയിൽ എത്താൻ വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങള് അറേഞ്ച് ചെയ്ത് കൊടുക്കണം തിരിച്ച് പോകുമ്പോഴത്തേക്ക് അവർക്ക് റെയിൽവേ സ്റ്റേഷൻലേക്ക് പോവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വാഹനം കൂടെ കൊടുക്കണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുവായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൻ്റെ ഒര് സൗകര്യ പ്രദമായ കാര്യങ്ങൾ ചെയ്ത് തരാൻ പറ്റുവോ ഇല്ലയോന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെ നടക്കുവൊ അതെ അത് തന്നെ അവര് ശനിയാഴ്ച്ച ഇവിടെത്തും

അല്ല എനിക്ക് എഴുപത്തഞ്ചിനും നൂറിനും ഇടയ്ക്ക് ആൾക്കാരാണ് വരുന്നത് നിങ്ങൾക്ക് നൂറ്റിരുപത് പേരുടെ ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാന് വിളിച്ചതേ അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ടല്ലൊ അതിന് ഞാനെന്തെങ്കിലും അഡ്വാൻസായിട്ടെന്തെങ്കിലും തരേണ്ട കാര്യങ്ങള് വല്ലതും ഉണ്ടോ ആ അത് തന്നെ അത് തന്നെ ആ അപ്പം എന്നാൽ ഞാനൊര് കാര്യം ചെയ്യാം ഞാന് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും ഞാൻ തോമാച്ചനെ നേരിട്ട് വന്നൊന്ന് കണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള എന്തൊക്കെ വേണമെന്ന് ഉള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങള് ഞാൻ അറിയിപ്പിക്കാം കേട്ടൊ അവര് അവരവിടെ അവര് അവരാരെങ്കിലും പിള്ളേരാരെങ്കിലും അങ്ങോട്ട് നേരിട്ട് വരും കേട്ടൊ ഓക്കെ എന്നാൽ ശരി ശരി ശരി ശരി ആയിക്കോട്ടെ ഓക്കെ